ഇന്ത്യയിലെ കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലത്തും പല രീതിയിലുള്ള കാലാവസ്ഥകളാണ് അപ്പോൾ നമ്മുടെ കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സഡ് കാലാവസ്ഥയാണ് ഇപ്പോൾ വിൻറ്റെർ കാലാവസ്ഥ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ജനുവരി ആ മാസങ്ങൾ ഒക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതായത് ഡിസംബർ നവംബർ തൊട്ട് ജനുവരി ഫെബ്രുവരി വരെ നമുക്ക് നല്ല തണുപ്പുള്ള ഒരു കാലാവസ്ഥയായിരിക്കും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഉള്ള സമയങ്ങൾ ഒക്കെ നമുക്ക് വേനൽ കാലമായിരിക്കും ഒരു മെയ് അവസാനം വരെ നമുക്ക് വേനൽ കാലമായിട്ടാണ് കാണുന്നത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മഴക്കാലം കാര്യങ്ങൾ ഒക്കെ വരുന്നത് അത് പിന്നെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള കാലാവസ്ഥകളാണ് ഇപ്പം ജമ്മു കാശ്മീർ ആ ഭാഗങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മഞ്ഞ് വീഴ്ചയായണ് അവിടെ മെയിൻ ആയിട്ടുള്ളത് പിന്നെ ബാക്കി ഉള്ള സ്ഥലങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മണാലി അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയാണ് ഭയങ്കരമായിട്ട് മഞ്ഞ് വീഴ്ചയാണ് ഇപ്പം മഴ മഴക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മഴയും അല്ലാത്തെ സമയത്ത് ഒക്കെ മഞ്ഞ് വീഴ്ചയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് പിന്നെ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും കേരളത്തിലെ പല സ്ഥലങ്ങളിലും പലരീതിയിലുള്ള കാലാവസ്ഥകളാണ് അപ്പോൾ കേരളത്തിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വയനാട്ടിൽ കുറച്ച് തണുത്ത ഒരു കാലാവസ്ഥയായിരിക്കും ചൂടുകാലത്താണെങ്കിലും വേനൽ കാലത്താണെങ്കിലും കുറച്ച് തണുത്ത ഒരു കാലാവസ്ഥ ആ ഒരു ടൈപ്പ് ആയിരിക്കും